ബൈക്കിങ് സംഘവുമായി കണ്ടുമുട്ടാൻ വളരെ ഏറെ സുഖമാണ് കാരണം വണ്ടിയെടുത്ത് റോട്ടിലിറങ്ങിയാല് ഒരുപാട് ബൈക്കുകളും സംഘങ്ങളും കാണാം അവരെ കണ്ടമുട്ടാൻ വളരെ സുഖമാണ് അതുകൊണ്ടുതന്നെ നമുക്കു മനസ്സിലാക്കേണ്ടത് ബൈ ഒരു റൈഡറെ സംബന്ധിച്ചിടത്തോളം ഒരു റൈഡറെ സംബന്ധിച്ചിടത്തോളം മറ്റു സംഘങ്ങളുമായി പോകുക ഒറ്റയ്ക്കു പോകുക എന്നുള്ളത് രണ്ടും രണ്ടാണ് രണ്ടു വിഭാഗത്തെക്കുറിച്ചു പറയുകയാണെങ്കിലും സംഘങ്ങളായി പോവുകയാണെങ്കിൽ ഒരു അബദ്ധം പറ്റിയാല് ഒരു അപകടം പറ്റിയാൽ ഒരു വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഹെൽപ്പിന് ആൾക്കാരുണ്ടാവുമെന്നുള്ളതാണ് അതുകൊണ്ടുതന്നെ അതാണ് അതിൻ്റെ മെറിറ്റായിട്ടു നാം കാണണ്ടത് ഇനി ഒറ്റയ്ക്കു പോവുകയാണെങ്കിൽ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അത്യാവശ്യമായി ആരുടെയെങ്കിലും സഹായം ചോദിക്കണമെങ്കിൽ ഒരാൾ ഒരാളില്ലാതെവരുകയും അയാൾ ബുദ്ധിമുട്ടാവുകയും ചെയ്യും വിമന്സിനെക്കുറിച്ചു പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകളെ സംഘമായി ചേർന്നു പോവുകയാണെങ്കിൽ ഒപ്പം ഒരുപോലെ പോകേണ്ടതുണ്ട് അതുകൊണ്ടു തന്നെ ഒരുപാടു പോകേണ്ടുന്നതു കൊണ്ടു തന്നെ തീർച്ച തീർച്ചയായും അവനെ വെയിറ്റ് ചെയ്ത കൊണ്ട് അവനെ കാത്തുനിൽക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അവന് ടൈം ലാഗ്നെസ് ടൈം ലാഗ്നെസ് വരികയും അതവനു ബുദ്ധിമുട്ടാവുകയും ചെയ്യും അവന് എത്തിപ്പെടാൻ ഉദ്ദേശിച്ച സ്ഥലം സമയം സന്ദർഭങ്ങൾ എന്നിവയൊക്കെ ആ ഒരു ഗ്രൂപ്പ് കാരണം അവനു നഷ്ടമാാകും തനിയെ പോവുകയാണെങ്കിൽ വിചാരിച്ച സമയത്ത് എപ്പോള് വേണമെങ്കിലും എത്തിപ്പെടാനും വളരെ കുറച്ച് സഞ്ചരിക്കാനും അവനു സാധിക്കും അതുകൊണ്ടു തന്നെ ഒറ്റയ്ക്കു പോവുക എന്നുള്ളതും അ സംഘമായി പോവുക എന്നുള്ളതു വളരെയേറെ ഉപകാരമുള്ള രണ്ടും വളരെ വ്യത്യസ്തമായ കാര്യമാണെന്നു നമ്മള് മനസ്സിലാക്കേണ്ടതുണ്ട് ഒറ്റക്ക് പോലും അതുപോലെ സോളോ റൈഡും അതല്ലെങ്കിൽ ഗ്രൂപ്പ് റൈഡൊക്കെ ഓരോരുത്തരുടെയും ചോയ്സാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് റൈഡാണു കൂടുതൽ താല്പര്യപ്പെടുന്നത് ഒരു ഗ്രൂപ്പ് റൈഡാകുമ്പോൾ അതില് ആസ്വദിക്കാനും മറ്റുള്ളവരുമായി സഹവസിച്ചുകൊണ്ട് ഒരു യുണീക്കായി ഒരു യൂണിഫോമായി പോകാനും അതുപോലെ തന്നെ സഹായങ്ങള് പരസ്പരം ചോദിക്കാനും വാങ്ങാനും ഒക്കെ കഴിയും എന്നുള്ളതുകൊണ്ട് ഏറ്റവും നല്ലതും സേഫസ്റ്റും ഒരു ഗ്രൂപ്പ് ആയി റൈഡ് ചെയ്യലാണ് ഇന്ന് സോ ഗ്രൂപ്പായി റൈഡ് ചെയ്യുക ലൈഫ് എൻജോയ് ചെയ്യുക